ഹലോ ഹലോ ഞാൻ സെൻ ജോസ് സ്കൂളിലെ ടീച്ചറാണ് സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ് അവിടെ യൂണിഫോം തയ്ക്കുന്നതിന് റേറ്റ് എങ്ങനെയാണ് പെൺകുട്ടികളുടെ അ കൂടതലുണ്ട് കൂടതലുണ്ട് അത് ഞങ്ങളുടെ സ്കൂളിലിൽ ഇപ്പോൾ ഒരു നൂറ്റി അൻപത് കുട്ടികളുണ്ട് അപ്പം ബൾക്കായിട്ട് തയ്ക്കുമ്പത്തേക്കും ഡിസ്ക്കൗണ്ട് അ പെൺകുട്ടികൾ പെൺകുട്ടികൾ ആ അപ്പം ഒരാൾക്ക് രണ്ട് ജോഡി വച്ച് രണ്ട് ഡ്രെസ് ജോഡിയാണ് വച്ചാണ് അപ്പോഴത്തേനും നൂറ്റി അൻപത് കുട്ടികളാകുമ്പം പറഞ്ഞോളു ആ രണ്ട് ജോഡിയാകുമ്പം എണ്ണുറ് അല്ല അപ്പം നൂറ്റി അമ്പത് കുട്ടികളുടെ തയ്ക്കുമ്പോഴത്തേക്കും ഡിസ്ക്കൗണ്ട് ഉണ്ടാകുമോ ഞങ്ങൾ വേറെ കടകളിൽ തിരക്കി അപ്പോൾ അവർ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടത്തെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു

നമ്മൾ ഇനി അവിടെ തന്നെ തന്നോളാം അപ്പം ഡിസ്ക്കൗണ്ട് ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും ഞങ്ങൾ വരുന്നത് പാവാടയും ബ്ലൗസും ഉം അതെ അതെ ഇപ്പോൾ നന്നായിട്ട് സ്റ്റിച്ചിങ്ങൊക്കെ ഉണ്ടല്ലോ അല്ലെ അതോ ആൾക്കാരെ ഇരുത്തി ചെയ്യും ആ അ അപ്പം ഞങ്ങൾ ടൈമിന് തരും ആ തരും അ ഞങ്ങൾക്ക് ഒരൂ ജൂൺ അഞ്ചാം തീയതിയിലേക്ക് വേണം അതെ ആ അങ്ങനെ വന്നു ആ വന്നു ആ വന്നോളു ഞങ്ങൾ അളവ് പറഞ്ഞു തരാം എന്നിട്ട് ഡ്രെസ്സ് തന്നു തുണിയും തന്നിട്ട് പൈസയും ഞങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നോളാം ഇവിടെ നിന്ന് തന്നോളാം ഇവിടെ നിന്ന് തന്നോളാം അ ഞങ്ങൾ പറയുന്ന സമയത്ത് തന്നെ തരാൻ ശ്രമിക്കുക അ അ അ

അ അ അ തന്നെ അ അ അപ്പ അഡ്വാൻസ് ആയിട്ട് വല്ലതും അ ശരി ശരി ആയിക്കോ അ ശരി അ തൊട്ട് അത് ആ അത് ഞങ്ങൾ പറഞ്ഞോളാം അത് എങ്ങനെയാണെന്ന് വച്ചാൽ തയ്ക്കുന്നത് ഞങ്ങൾക്ക് ഡിസ്ക്കൗണ്ട് തരണം അല്ല അല്ല അല്ല വെനസ്ഡെ വേറെ വെനസ്ഡെ വേറെ ആണ് അത് ഞങ്ങൾ പറയാം ഇത് യൂണിഫോം തയ്ച്ച് കഴിഞ്ഞിട്ട് മറ്റേ കുട്ടികളുടെ പേരെൻസിനോട് ചോദിച്ചിട്ട് ഞങ്ങൾ പറയാം ആ ആർകൊക്കെ വേണമെന്നുള്ളത് പറയാം ഉം ശരി